ഇന്ഡ്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്സവങ്ങളിലൊന്നാണ് ദീപാവലി ദീപാവലിക്ക് ജനങ്ങള് ആഘോഷത്തോടെ പടക്കം പൊട്ടിക്കുകയും പൂത്തിരി കത്തിക്കുകയും ആ നല്ല സ്വീറ്റ്സുകളെല്ലാം കഴിച്ച് നല്ല സ്വീറ്റ്സുകളെല്ലാം ഉണ്ടാക്കി നല്ല രീതിയില് അവര് സന്തോഷിക്കുകയും ചെയ്യുന്നു സന്തോഷിക്കുകയും ചെയ്യുന്നു ജനങ്ങള് ദീപാവലിക്ക് പുത്തനുടുപ്പുകളും പുത്തന് ഡ്രസ്സുകളുമെല്ലാമിട്ട് അന്നേ ദിവസം ഗവണ്മെന്റവധി കൊടുത്തിരിക്കുന്നതിനാല് ഗവണ്മെന്റ്റുദ്യോഗസ്ഥരൊരിക്കെ എല്ലാവരും വീട്ടിലിരുന്നു നല്ല രീതിയിലാഘോഷിക്കുകയാണ് അടുത്തതായി കേരളത്തില് ക്രിസ്മസ് ക്രിസ്മസ് ആഘോഷിക്കുന്നു ഓണം ആഘോഷിക്കുന്നു നമ്മക്കാദ്യം ഓണം എടുത്താല് ഓണത്തിന് നല്ല നല്ല കാര്ഷീക വിളകളെല്ലാം എടുത്ത് അവരതിനെ ഫുഡുണ്ടെ കുത്തരിയെടുത്ത് ഫുഡുണ്ടാക്കി നല്ല രീതിയില് നല്ല രീതിയില് നല്ല ഒ ഒരു സദ്യ പോലെയുണ്ടാക്കി അവര് വീട്ടിലെ അംഗങ്ങളെല്ലാവരും ബന്ധുക്കളെല്ലാവരും കൂടെ ചേര്ന്നു ഒന്നിച്ചിരുന്നു സന്തോഷത്തോടെ പുത്തനുടുപ്പും ഇട്ട് കളിച്ചും ചിരിച്ചും അവരാ അന്നേദിവസം ഓണത്തിനെ ആഘോഷ് ആഘോഷ ആഘോഷത്തോടെ വരവേല്ക്കുകയാണ് ഓണത്തിന് കുട്ടികള്ക്ക് ഊഞ്ഞാലിട്ട് ഊഞ്ഞാലാടുകയും ഊഞ്ഞ് ഓണപ്പാട്ട് പാടി പാട്കയും ചെയ്ത് അതില് നല്ല സഹാനന്ദം കണ്ടെത്തുകയാണ് ആനന്ദം കണ്ടെത്തുകയാണ് ദീപാവലി ഇത് ക്രിസ്മസ് ക്രിസ്മസ് അന്നേദിവസം ഈശോ ജനിച്ച ഈശോ ജനിച്ച ദിവസമായി ഇത് ഈശോ ജനിച്ച ദിവസമാ കരുതപ്പെടുകയും അന്നേദിവസം നല്ല ഈ പിന്നെ എല്ലാ പള്ളികളിലും ആരാധന ആലയങ്ങളിലും നല്ല നല്ല രീതിയില് കുറുബാനകള് കൈക്കൊള്ളുകയും ജനങ്ങളതോട് സന്തോഷത്തോടെ ആ ക്രിസ്മസാഘോഷിക്കുകയും ചെയ്യുന്നു ക്രിസ്മസോടനുബന്ധിച്ച് ജനം പുത്ത് പുത്തനുടുപ്പും പുത്തന് പുത്തനുടുപ്പുമിട്ട് നല്ല രീതിയില് സന്തോഷത്തോടെ കുടുംബജനം ഒരു കുടുംബത്തിലുള്ള എല്ലാവരും ഒന്നിച്ചിരുന്ന് ആഹാരം കഴിച്ച് സന്തോഷത്തോടെ പിരിയുകയും ചെയ്യുന്നു പൊങ്കലാണെങ്കിലും പൊങ്കല് നല്ല ഒരു പൊ പൊങ്കല് എടുക്കാണതിലും പൊങ്കലിന്റെ പൊങ്കല് കരിമ്പും പിന്നെ വെച്ച് പുത്തന് നെല്ലും പുത്തന് കല പുത്തന് നെല്ലും വച്ച് നല്ലെ നല്ല നല് ഒരി നാലഞ്ചു ദിവസം വരെയും നല്ല ആഘോഷത്തോടെ ഇവറ് ഇവര് ആഘോഷിക്കുകയാണ് അന്നേദിവസം ഗവണ്മെന്റ് നാല് മൂന്ന് നാല് ദിവസം അവധിയും കൊടുത്ത് അവരെ സന്തോഷിപ്പിക്കുകയാണ് നോര്ത്തിന്ഡ്യയില് ദസറ എന്നൊരു ആഘോഷമുണ്ട് ആ ആഘോഷത്തിനും ഗവണ്മെന്റ് അവര്ക്കവധി കൊടുുത്ത് അവര് ഈ ദ ദസറയും നല്ല ഒരു രീതിയില് ആഘോഷിച്ച് ആഘോഷിക്കുകയാണ് ബോ ഹോലി മുസ്ലീമാ മുസ്ലീമാണെങ്കിലും പലെ പലെ പ പല രീതിയിലും പല ആഘോഷങ്ങളും മുസ്ലിംസിനുമുണ്ട് ഓണത്തിനാണെങ്കിലും ഓണം ഓണം ഇന്ഡ്യയില് ഒര് പ്രധാനപ്പെട്ട ഒരു ആഘോഷമായി തീ ആഘോഷമാണ് ഇന്ഡ്യയിലെ ഇന്ഡ്യയിലേറ്റവും പ്രധാനപ്പെട്ട ഉത്സവങ്ങളാണ് ഓണം ദീപാവലി ക്രിസ്മസ് ദസറ ബോഹി ഹോലി അങ്ങനെ പല തരത്തിലും പല തരത്തിലും പല രീതിയിലും പല പല ആള്ക് പല ഭാഷകളിലുള്ള ആള്ക്കാരും ഓരോ രീതിയില് ആഘോഷങ്ങളെ പല രീതിയിലും ആഘോഷമാ ആഘോഷമാക്കി സന്തോഷിക്കുന്നു അവ അവധി ഇത് ഗവണ്മെന്റവര്ക്ക് അവധി ദിനമാക്കി പ്രഖ്യാപിക്കുകയും അവറാ അവധി ദിവസത്തി മാക്സിമം അവരെ ആ ആഘോഷിക്കുകയും സന്തോഷിക്കുകയും ചെയ്യുന്നു ഇന്ഡ്യയിലേറ്റവും പിന്നെ പ്രധാനപ്പെട്ട ഉത്സവങ്ങളാണ് ഇവ